ആ ഞങ്ങളുടെ ഗ്രാമത്തിൽ ജലസേചനത്തിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം വെള്ളം തീരെ മോശ്മുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്തിൻ്റെ മുൻസിപ്പാലിറ്റിയുടെ വക ജലസംഭരണികൾ കൂട്ടമായി താമസിക്കുന്ന ആൾക്കാർ ആളുകൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജലസംഭരണികൾ പണിതു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്താണെങ്കിൽ തന്നെ എല്ലാ വീടുകളിലും കിണറുകൾ എല്ലാ വീടുകളിലും കിണറുകളുകൾ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കൈത്തോടുകൾ പുഴകൾ വെള്ളത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും നമ്മുടെ പ്രദേശത്ത് ഇല്ല കാരണം ഇപ്പം എന്ത് കൃഷി ചെയ്താലും വെള്ളം ഒരുപാട് ആവശ്യമാണ് കാരണം കാപ്പിയാണെങ്കിലും പച്ചക്കറികൾ പയറുകൾ അങ്ങനത്തെ കൃഷി ആവശ്യങ്ങൾക്കും പച്ചക്കറികൾകൊക്കെ വെള്ളം എല്ലാ ദിവസം വെള്ളം പിന്നെ ചെടികൾ അങ്ങനത്തെ പച്ചക്കറികൾക്കും പിന്നെ തെങ്ങ് കവുങ്ങ് വാഴ കാപ്പി കാപ്പിയുടെയൊക്കെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഡെയിലി കാപ്പി ഇത് എല്ലാ ദിവസവും കാപ്പി നനയ്ക്കണം അപ്പോൾ അതൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്